ആ ഇത് ജാസിമല്ലേ ആ ഞാൻ എൻ്റെയൊരു ഫ്രണ്ട് പറഞ്ഞ് വിളിക്കുന്നതാണ് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് സ്ഥലം എന്താ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് കൊലെഡീന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വെയ്ക്കണായിരുന്നു സ്ഥലം മേടിക്കാനായിരുന്നു അതെ എനിക്ക് വേണ്ടത് ഒരു എന്താ പറയുക അറ്റ്ലീസ്റ്റൊരു ഫോട്ടി സെന്റ് സെന്റ് സ്ഥലം എങ്കിലും വേണം ആ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലൊള്ള വീട് വയ്ക്കണം അതിന് വേണ്ടീട്ടാണ് ഓൾമോസ്റ്റ് മിഡിലായിട്ട് അതായത് എന്നാൽ ടൗണുമല്ല എന്നാലൊട്ട് ഉള്ളിലുവല്ല മനസിലായില്ലേ അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തീന്നെനിക്ക് രണ്ട് മൂന്ന് രണ്ട് ആ ഓക്കെ അങ്ങനെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ വച്ചിട്ട് ഇപ്പൊൾ സെന്റിനെനിക്കെന്നാൽ ഒരു ഫയൽ റ്റെൻ ലാക്ക്സോളം സെന്റിന് പോകുന്നതിന് പ്രശ്നമില്ല ഇതേ എന്ന പതിനഞ്ച് ലക്ഷം പറയുമ്പോൾ അത് കുറച്ച് പ്രൈസ്ലി ആണ് അപ്പൊൾ അതെന്താ അത്ര പ്രൈസിലി ആയി വരണം എന്താണവിടത്രെ എവിടെയാ ഉള്ളെ അപ്പം നോക്കാം ഞാൻ സ്ഥലം ഓക്കെ സ്ഥലം ഞാൻ അത് വന്ന് നോക്കീട്ട് പറയാം അത് ഞങ്ങളൊരു ദിവസം ഫ്രീ ആകുമ്പോൾ വന്ന് കാണിച്ച് തന്നാൽ മതി പിന്നെ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ കാര്യംണ്ട് ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് കോൺസെപ്റ്റ് ഒന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തഞ്ഞൂറ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റെങ്കിലും വേണം ത്രീ തൗസൻഡാണ് എനിക്ക് വേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറായാലും കുഴപ്പമില്ല രണ്ടായിരത്തഞ്ഞൂറ് സ്കൊയർ ഫീറ്റ് വേണം അതിലൊരു മിനിമ് അഞ്ച് ബെഡ്റൂംസ് വേണം എനിക്ക് ഒരു കിച്ചെൺ പിന്നെ വരാന്ത വേണം യൂണിക്ക് ആയിട്ടുള്ള സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യണം അത്രേയുള്ളൂ അത് അത് അങ്ങനെ ഞാൻ അങ്ങനത്തെ അങ്ങനത്തെ പേ സ്പെസിഫിക്കേഷൻസൊന്നുമില്ല